മറ്റ് ഗ്രഹങ്ങളിലെ അന്യജീവികളുടെ സാന്നിധ്യം തെളിയിക്കുന്നതിനായി പലതരത്തിലുള്ള നിരീക്ഷണങ്ങളും വിവിധ രാജ്യങ്ങൾ ചെയ്യുന്നുണ്ട് അത്പോലെ തന്നെ അന്യഗ്രഹജീവികളുടെ സാന്നിധ്യം ഉണ്ടെന്ന് തന്നെയാണ് ഞാനും വിശ്വസിക്കുന്നത് കാരണം അത്തരത്തിലുള്ള പഠനങ്ങളാണിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അന്യഗ്രഹജീവികളുടെ സാന്നിധ്യം സാറ്റ്ലൈറ്റ് വിക്ഷേപങ്ങളുടെയും മറ്റ് കണ്ടെത്തലുകളുണ്ട് ഇങ്ങനെ സാറ്റ്ലൈറ്റ് വഴി ലഭിച്ച അന്യഗ്രഹജീവികളുടെ സന്ദേശങ്ങൾ ഡിക്കോട് ചെയ്തുകൊണ്ടിരിക്കുന്നതായി ഒക്കെ വാർത്തകളിൽ വന്നിട്ടുണ്ട് ഇതിലെത്രമാത്രം സത്യമുണ്ടെന്ന് അന്വേഷിക്കേണ്ടതായിട്ടുണ്ട് എന്നിരുന്നാലും അന്യഗ്രഹജീവികൾ ഉണ്ടെന്നുള്ളതായി തന്നെയാണ് ലോകം വിശ്വസിക്കുന്നത് ഇതുപോലെ തന്നെ മറ്റ് ഗ്രഹങ്ങളിൽ മനുഷ്യൻ ജീവിക്കാൻ സാധിക്കുമെന്നും ഇപ്പോൾ പഠനങ്ങളിൽ കണ്ടെത്തിയിട്ടുണ്ട് അങ്ങനെയെങ്കിൽ മറ്റു ഗ്രഹങ്ങളിൽ ഒരു ബാഹ്യ ജീവൻ നിലനിൽക്കാനുള്ള സാധ്യത വളരെ വലുതാണ്